എനിക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നോ നേട്ടം എന്ന് പറയാനുള്ളത് ഞാനൊരു മുന്നൂറു വാഴ നമ്മുടെ പറമ്പില് വച്ചിട്ടുണ്ടായിരുന്നു വാഴ നമ്മുടെ വയലില് അപ്പം അത് വയ്ക്കാന് കുടുംബത്തിലെ ഫാമിലിയുടെ സപ്പോര്ട്ട് ഉണ്ടെങ്കിലും കുറച്ചായിട്ടോ ഇപ്പോഴൊന്നും അല്ല കുറച്ചായി കുറച്ച് കാലമായി അപ്പം ആദ്യത്തെ എന്റെ സംരംഭം ആയിരുന്നു കൃഷിയിലേക്ക് എന്റെ ആദ്യത്തെ സംരംഭം ആയിരുന്നു അപ്പം ഞാന് അത് വെച്ചത് അത് വെച്ച് വാഴക്കുല വെട്ടികൊടുത്ത് കൊടുത്ത് നമുക്ക് ഒരു നേട്ടം ഉണ്ടാകുമല്ലൊ മുന്നൂറ് ആണെങ്കിലും നമുക്ക് മൂവായിരം ആണേലും നമുക്കതിൽ നിന്നുള്ള ഒരു ലാഭം ഉണ്ടല്ലോ അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷം കാരണം സ്വന്തമായി ഞാന് തന്നെയാണ് പോയി പണിയെടുത്ത് പണിയെടുത്ത് വേറൊരാളെ വെച്ചതൊന്നും ഇല്ല പിന്നെ ഭര്ത്താവ് ഇടയ്ക്ക് വന്നു സഹായിച്ചു കുറച്ച് കാരണം ഞാന് കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ പോയി തടമെടുക്കലും കാര്യങ്ങളും ഒക്കെ അല്ലേ അപ്പോൾ ഞാനും ആളു വന്നു എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നു അതുണ്ടായി വെട്ടികൊടുത്തിട്ട് നമുക്കൊരു ലാഭം കിട്ടുന്നു ഞാനൊരു പൈസ മിച്ചം ഒരു പൈസ ഉപയോഗിക്കാതെ അവസാനം വരെ എല്ലാം കൂട്ടി വച്ചു പിന്നെ ഉപയോഗിക്കുന്ന പൈസയുടെ കണക്കൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ലാഭം എന്ന് പറഞ്ഞ ഒരു എമൌണ്ട് വരുമ്പോഴുള്ള നമ്മുടെ ഒരു അഭിമാനം ഉണ്ടല്ലോ നമ്മള് ചെയ്തിട്ട് നമുക്ക് ചെബി നമ്മള് കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയ ഒരു അചീവ്മെന്റ് ആണ് എനിക്കത് തോന്നിയത്